ഹലോ ആ ഞാന് മോൻ്റെ കല്യാണമായിരുന്നേ ആ അതെ അതെ ഞാന് മാനന്തവാടി മൊത്തം നമ്മള് പിന്നെ മൂന്ന്

ആ അതൊക്കെയുണ്ട് ആ അതൊക്കെ വേണമായിരുന്നു ഹൽദി മെഹന്തി ഏപ്രിൽ പതിനാറ്

ആ അതെ അതെ അ ഇല്ല ഒരുമിച്ചാണ് നടത്തുന്നത്

അല്ല അത് നിങ്ങള് റെഡിയാക്കിത്തരണം

ആ ആയിരിക്കും ആയിരിക്കും അതെ അല്ലെ അ അതിപ്പോൾ നമ്മളെ ഓ രാവിലെ തന്നെ ഇണ്ടാവും

അതേല്ലെ അ ഓ ഓക്കെ എന്നാല് അതു കുഴപ്പമില്ല ആ ഫിക്സെയ്യാം ആ ഓക്കെ താങ്ക്യൂ